തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിലും തിരക്കേറിയ കൊച്ച് കൊച്ച് കാര്യങ്ങൾ നമുക്കും വേണ്ടേ അങ്ങനുള്ള ഒരു നിമിഷത്തിൽ നമ്മളൊരു തീരുമാനം അങ്ങ് എടുക്കും ഒരു പോക്കങ് പോകാം കറങ്ങാൻ അല്ലാതെ നമ്മൾ ഈ ഇന്ന ഇന്നതൊക്കെ പ്ലാൻ ചെയ്താൽ സത്യം പറഞ്ഞാൽ അത് നടക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു ഷെഡ്യൂള് നമ്മളങ്ങ് ഉണ്ടാക്കി സമയം കണ്ടെത്തി നമ്മൾ നമ്മുടെ ജീവിതം ജീവിതം ഒന്നേയുള്ളൂ ലൈഫ് എൻജോയ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മളും ബൈക്ക് യാത്ര നടത്തിയിട്ടുണ്ട് അതിന് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയാനൊന്നും ഇല്ല നമ്മളൊരു സ്ഥലത്ത് പോവണം എന്ന് ആഗ്രഹിക്കുക കൂടുതലായിട്ട് ആഗ്രഹിക്കും തോന്നുമ്പോൾ നമുക്കങ്ങ് പോവാം നമുക്ക് നമ്മുടെ ലെവലിന് പറ്റിയ ഫ്രൻസ് ആയിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന പാട്ട്ണറും അങ്ങനെ തന്നെയാണെങ്കിൽ അടിപൊളി നമുക്കിങ്ങനെ പോവണം തോന്നുന്നു എന്ന് പറയുക പെട്ടെന്ന് ബാഗൾ തയാറാക്കുക കെട്ടിപ്പെറുക്കി എന്താണ് ഉള്ളത് എന്ന് വെച്ചാൽ എല്ലാം പെറുക്കി ഇടുക വണ്ടിയിൽ കയറി വണ്ടി എടുക്കുക പോവുക അതാണ് നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഫിനാഷ്യൽ കാര്യങ്ങളുണ്ട് ഫുഡ് കാര്യങ്ങൾ അക്കോമഡേഷൻ ഉറക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ് പ്രത്യേകിച്ച് ഷെഡ്യൂളുകളൊന്നും എങ്ങനെയാ കണ്ടെത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പോവുന്ന കാര്യങ്ങൾ തയ്യറെടുക്കുന്നു അതത്രേ ഉള്ളൂ പിന്നെ റൈഡർമാരുടെ കൂടെ ഒന്നും നമ്മൾ പോയിട്ടില്ല നമ്മുടെ പാറ്റ്നർൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ് കൂടുതലായിട്ടും നമ്മൾ ബൈക്കിൽ യാത്ര നടത്തിയിട്ടുള്ളത് കൂടുതലായിട്ടും പ്ലാൻ ചെയ്ത് പോവുന്നത് വളരെ കുറവാണ് നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കുക പോവുക പിന്നെ പ്ലാൻ ചെയ്ത് പോയിട്ടില്ല എന്നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഗോവയ്ക്ക് പോവണം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു അപ്പം പോവുന്ന വഴിക്ക് നമുക്കത് വൺ വീക്ക് അതായത് ഒരാഴ്ചയിൽ ട്രിപ്പ് എന്ന രീതിയിലാണ് ഞങ്ങൾ പോയത് അത് ബൈക്കിലായിരുന്നു പോകുന്നത് ഇവിടെനിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്താണ് നമ്മൾ ഊട്ടി പോയി കൊടയ്ക്കനാൽ പോയി മൂന്നാർ മൂന്നാർ പാലസ് വിസിറ്റ് ചെയ്ത് നമ്മൾ ടിപ്പു സുൽത്തൻ്റെ മൂന്നാർ പാലസ് വിസിറ്റ് ചെയ്തു ആ ആ അങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കുറച്ച് സ്ഥലങ്ങൾ ടച്ച് ചെയ്തായിരുന്നു നമ്മൾ ഗോവക്ക് പോയത് അതുപോലെത്തന്നെ നമ്മൾ ഞങ്ങളുടെ സ്വന്തം ട്രിവാൻഡ്രം ട്രവാഡ്റത്ത് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ പ്ലാൻ ചെയ്ത് പോയ യാത്രകൾ വളരെ കുറവായത് കൊണ്ട് തന്നെ കൂടുതലും സഡൻ പെട്ടെന്നുണ്ടായ യാത്രകളാണ് പിന്നെ ബൈക്കിൽ പോകുന്ന എക്സ്പീരിയൻസ് പറയാനില്ല അടിപൊളിയാണ് സുഹൃത്തുക്കളോടൊപ്പം ആയാലും പാട്നർമാരോടൊപ്പമായാലും ബൈക്കിൽ പോകുന്ന എക്സ്പീരിയൻസ് മറ്റ് ഒരു വാഹനത്തിൽ പോയാലും നമ്മൾ കിട്ടില്ല ആ പിന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി നടക്കണമെന്നില്ല നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ എല്ലാം പെറുക്കി ഒതുക്കി വെക്കുക പിന്നെ പോവാൻ തീരുമാനം എടുക്കുമ്പോൾ പോവുക അത്രേ ഉള്ളൂ പ്ലാൻ ആ ചെയ്ത് ചെയ്ത് സമയം കളയാൻ നിൽക്കാറില്ല ഷെഡ്യൂളുകൾ തയ്യാറാക്കി നമുക്ക് വേണ്ട സാധനങ്ങൽ അടുക്കി പെറുക്കി വെച്ച് പോവുക